കരകൗശലവസ്തുക്കൾ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ട് കരകൗശലവസ്തുക്കൾ വീടിന് ഏറെ ഭംഗി നൽകുന്നു പൊതുവേ കരകൗശലവസ്തുക്കൾക്ക് നിർമ്മാണ ചിലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ അതിന് നല്ല വിലയുണ്ട് കരകൗശലവസ്തുക്കൾ പല രീതിയിൽ നിർമ്മിക്കാൻ ഇന്നത്തെ ഇന്ന് പല നമ്മൾ മാലിന്യമായി തള്ളുന്ന പല വസ്തുക്കളും കരകൗശലവസ്തുക്കളാക്കി മാറ്റുന്നുണ്ട് ഒരാളുടെ കഴിവ് കഴിവും ആശയങ്ങളും ഭാവനയുമൊക്കെ ഒരു കരകൗശലവസ്തുവിൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ് കരകൗശലവസ്തുക്കൾ വീടിന് ഏറെ ഭംഗി നൽകുന്നതോടൊപ്പം തന്നെ ഏറെ മൂല്യം ഉള്ളവയുമാണ് പല തരത്തിലുള്ള കരകൗശലവസ്തുക്കളും നമ്മുടെ ആധുനികർ ആധുനികർ ശേഖരിച്ച് വെച്ച കരകൗശലവസ്തുക്കൾ പലതും ഇന്ന് മ്യൂസിയങ്ങളിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും